അത് ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ എസ് എച്ച് ഹോസ്പിറ്റലിൽ ചേർത്തല വർക്ക് ചെയ്യുന്നതാണെ അപ്പോൾ എനിക്ക് അവിടെ പി എഫ് ഫണ്ട് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അഡ്വാൻസൊക്കെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നെ അപ്പം അതിന് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഇ പി എഫ് ഫണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് ലോഗിൻ ചെയ്യണം അത് നേവിഗേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട് അപ്പോൾ ട്രാക്കിനായിട്ട് യു എൻ മുൻകൂർ ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ ഒന്നു തന്നാൽ നല്ലതായിരിക്കും കേട്ടോ